ആ അതേ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലെ കുക്കാണ് എന്താണ് വിളിച്ചത് ആ ആ

നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഡിന്നർ ഏതാ വേണ്ടത് ആ ആ ഇപ്പോൾ പിന്നെ ഇവിടെ ചിക്കൻ സ്റ്റൂവും അതുപോലെ അപ്പമുണ്ട് ബ്രേക്ഫാസ്റ്റിനു മെയിൻ ഐറ്റമാണ് ചിക്കൻ സ്റ്റൂവും അപ്പവും നിങ്ങൾക്ക് അതുവേണോ ആ ആ ആ നിങ്ങളിപ്പോൾ ഏ ഡേ ഇപ്പോൾ ഒരു വൺ ഡേന്നു പറയുമ്പോൾ മൂന്നും ഡിന്നറും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ടോ ബ്രേക്ഫാസ്റ്റിൽ ഒരു ദിവസത്തേ മൊത്തം അപ്പോൾ വൈകുന്നേരത്തെ ചായ കടി അതൊക്കേ വേണ്ടെ വരുംല്ലേ ആ അപ്പം ഇരുപത് ഇരുപത് പേർക്കല്ലേ മുപ്പതുപേരുണ്ടാവും ആ ആ അപ്പോൾ നിങ്ങൾ രാവിലേ ഇവിടെത്തില്ലേ രാവിലേ ഒരു രാവിലത്തെ ടീ വേണോ ഒരു ആ ആ ആ ആ അപ്പോൾ ആ ഇവിടെ ബ്രേക്ഫാസ്റ്റായിട്ട് ചിക്കൻ സ്റ്റൂവും അപ്പവും പിന്നെ ഉച്ചക്ക് ബിരിയാണി അതുപോലേ പിന്നെ സദ്യയുണ്ടാവും എന്താന്നുവെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് പോലെ ഇണ്ടാവും പിന്നെ രാത്രിയിൽ ചപ്പാത്തി അത് ബഫേ ആയിട്ടാണ് ചപ്പാത്തി വെള്ളയപ്പം പൊറോട്ട അങ്ങനത്തേ ബഫേ ആയിട്ട് കൊടുക്കും അപ്പോൾ രാവിലത്തെ അപ്പോം ചിക്കൻ സ്റ്റൂവും ആണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇവിടുത്തെ അപ്പോൾ അത് അതിണ്ടാവും വൈകുന്നേരം പഫ്സ് അതുപോലെ സാൻഡ്വിച്ച് അതുപോലുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്താവേണ്ടേന്നുവെച്ചാൽ ഓരോരുത്തർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആ ആ അപ്പോൾ എത്ര മുപ്പതു പേരാവുമ്പോൾ എത്ര ഇവിടെത്തന്നെ ഇതും ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഇപ്പുറത്തു തന്നേ ഇതിൻ്റെ സ്റ്റേ ചെയ്യാനുമുണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ ആ എന്നാപ്പിന്നേ ഇതുമൂന്നും ഇപ്പോൾ മുപ്പതുപേർക്കാവുമ്പോൾ ഞാനൊന്നു കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തിട്ട് പറഞ്ഞുതരാം ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ പോരേ ആ ആ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കേ ഇതിൽ പറ ആ ആ ഇതിൻ്റെ ക്യാഷ് എത്രയാവും എന്നു എങ്ങനെ എത്ര മുപ്പതുപേർക്ക് എത്രവേണം അതൊക്കേ നിങ്ങളൊന്നൂടെ പറഞ്ഞുതന്നാൽ മതി മുപ്പതുപേർക്ക് ഇങ്ങനെ ഏതൊക്കേ ഐറ്റംസ് വേണ്ടിവരും എന്നൊക്കേ ഒന്നു ചെറിയൊരു രീതിയിലൊന്നു പറഞ്ഞുതന്നാൽ മതി അപ്പോൾ ബാക്കി ഞങ്ങൾ അറേഞ്ച് ചെയ്യാം പിന്നെ ക്യാഷൊക്കേ വരുന്ന അന്നു തന്നാൽ മതി പിന്നെ അതിൻ്റെ മുൻപ് ആ എത്രയാന്നു വെച്ചാൽ അറിയിക്കാം വരുന്നന്നു അറിയിക്കാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതെന്തായാലും ബുക്ക് ചെയ്യട്ടെ ഇതിങ്ങനെ ഉള്ള ആ ആ എന്നാൽ ഓക്കേ കറക്ട് ഈ കോഴിക്കോട് എം ജി റോഡിൻ്റെ ആ ഒരു പരിസരത്തായിട്ട് വരും ഈ റഹ്മത്തു ഹോട്ടലിൻ്റെയൊക്കേ അടുത്തായിട്ട് വരും ആ ആ എന്നാൽ ഓക്കേ ആ ആ ഓക്കേ ഓക്കേ